നഗരങ്ങളിലെ പത്രങ്ങളിലെ നഗരങ്ങളിലെ വാർത്തകൾക്ക് തന്നെയാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ ഗ്രാമത്തിലെ വാർത്തകളെ എപ്പോഴും വളരെ ചെറുതായിട്ട് തന്നെയാണ് കൊടുക്കുക കാണപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്രാമങ്ങളുടെ ആ ലാളിത്യവും ആ മഹാ മനോഹാരിതയും ആ പ്രശോഭയും ഒന്നും നഗരങ്ങളിലെ പത്രങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് കൊടുക്കാറില്ല ഗ്രാമീണ ജീവിതത്തിൻ്റെ സൗന്ദര്യം നിഷ്കളങ്കത അതിൻ്റെ പ്രത്യേകത അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ നിശബ്ദത ഇതൊന്നും നഗരത്തിലെ പത്രങ്ങളിൽ വേണ്ട പോലെ കൊടുക്കാറില്ല ഇപ്പം നഗരങ്ങളെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തയായിട്ടാണ് ആയിട്ടാണ് പലപ്പോഴും പ്രത്യക്ഷപ്പെടാറ് ഉള്ളത് ഇതാണ് പലപ്പോഴും ഗ്രാമം ജീവിതത്തിന് ഇൻഡ്യയുടെ ആത്മാവ് രാജ്യത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത് ആ ഗ്രാമങ്ങളുടെ ഒക്കെ വേണ്ടത്ര പ്രാധാന്യം ശരിക്കും നഗരങ്ങളിലെ പത്രങ്ങൾ കൊടുക്കാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ്